ഇത് ഫർസാ ഹോട്ടലല്ലേ ഞാൻ കുറച്ച് നേരത്തെ പൊറോട്ടയും ചിക്കൻ കറിയും എറച്ചി വരട്ടിയതൊക്കെ വാങ്ങി എന്നിട്ടയാൾ രണ്ടു മണിക്കാണ് കൊണ്ടുവന്നത് ഞാൻ ഒരു മണിക്ക് ഓഡറ് കിട്ടണം എന്ന് പറഞ്ഞിന് പക്ഷെ അയാൾ അയാൾ അത് കൊണ്ടുവന്നത് രണ്ടു മണിക്കാണ് എന്നിട്ട് ഞാൻ അയാളോട് എന്തേ നേരം വൈകിയേയെന്ന് ചോദിച്ചപ്പം ബ്ലോക്കായിന് അങ്ങനെയൊക്കെയാണ് അയാൾ പറയണത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പം അങ്ങനത്തെ എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ നമ്മൾ നല്ല പൈസ കൊടുത്ത് വാങ്ങണതല്ലേ അതുകൊണ്ട് നിങ്ങൾക്കത് സ്വഭാവം ഭയങ്കര മോശമായി തോന്നി